അന്ധവിശ്വാസമെന്ന് പറഞ്ഞാൽ ആ ഈ വിശ്വാസത്തേക്കാൾ കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നത് മനുഷ്യരിപ്പം അന്ധവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു ഈശ്വരനുണ്ടെങ്കിൽ നമുക്ക് അന്ധവിശ്വാസം വേണ്ടല്ലൊ ഈശ്വരനെ ഈശ്വരവിശ്വാസമുള്ളവർക്ക് ഒരിക്കലും അന്ധവിശ്വാസം ഉണ്ടാവത്തില്ല കാരണം ഇപ്പോഴത്ത അന്ധവിശ്വാസം എന്തോ ഓരോരുത്തർ പറയും ഓഹ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നശിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ അവർ വന്ന് ഞങ്ങളുടെ വസ്തു കൊണ്ടുപോയി മുട്ട കുഴിച്ചിട്ടു തേങ്ങ കുഴിച്ചിട്ടു ചരട് കെട്ടി മറ്റെ ഇതൊക്കെ പറഞ്ഞാൽ എന്തുവാണ് അന്ധവിശ്വാസങ്ങളല്ലേ എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ ഓരോ പിന്നെ തലവര കൊടുത്തിട്ടുണ്ട് ആ തലവര അനുസരിച്ചേ നമ്മൾ ജീവിക്കത്തുള്ളു ഇന്ന ആളെയെ ജനിച്ച ഉടനെ ഒരു ഒര് കുഞ്ഞ് ജനിച്ചാൽ എത്ര നാൾ ജീവിക്കണം എങ്ങനെയൊക്കെയായി ജീവിക്കണം ജീവിതം എങ്ങനെയൊക്കെ പോണം അതെല്ലാം ഈശ്വരനാണ്